എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം ഉള്ളത് മലയാള ഭാഷ തന്നെയാണ് ഇപ്പം മലയാളത്തില് തന്നെ നമ്മുടെ ഓരോരോ സ്ഥലത്ത് പല പല ഭാഷാ ഭേദങ്ങളാണ് ചില സ്ഥലങ്ങളിലോട്ട് ചെന്നാല് ചിലർ മലയാളം സംസാരിക്കുമ്പം നമുക്ക് മനസ്സിലാകത്തില്ല ഇങ്ങേ അറ്റം ഈ പിന്നെ മലപ്പുറം എന്നൊക്കെ മലപ്പുറത്ത് വേറൊരു ഇപ്പം മലയാളം തന്നെ വേറൊരു ഭാഷാരീതി ആയിരിക്കും കണ്ണൂർ തൃശ്ശൂർ അങ്ങനെയോരോ സ്ഥലത്തും ചെല്ലുമ്പം നീട്ടവും കുറുക്കും മലയാളത്തിന് തന്നെ പല പല ഭാഷാ ഭേദങ്ങളായിട്ടാണ് കാണുന്നത് പക്ഷേ നമ്മൾ ആലപ്പുഴക്കാര്ക്കെന്നു പറയുമ്പം ആലപ്പുഴക്കാര്ക്ക് ഒരു ഒരു ഈണത്തിലായിരിക്കും നേരേ മറിച്ച് നമ്മൾ തിരുവനന്തപുരത്തോട്ട് ചെല്ലുമ്പം അവിടെ ഒരു ഭാഷാ വ്യത്യാസം കാണും മലയാളത്തിൽ എന്തിരേ ഏതിരേ എന്നെക്കെ വരും തൃശ്ശൂർ വരുമ്പം നീട്ടി വരും അങ്ങനെ കൊല്ലത്ത് വേറൊരു ഭാഷ അങ്ങനെ എല്ലായിടത്തും പല പല ഭാഷാ വ്യതിയാനങ്ങളാ ഉള്ളത് നമ്മൾ ഈ മലയാളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പണ്ടുള്ള കാലങ്ങളിലൊക്കെ മലയാളം കടിച്ചാൽ പൊട്ടാത്ത പോലെ ഈ സംസ്കൃത വാക്കുകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇപ്പോള് നല്ല രീതിയിലുള്ള മലയാള തനിമയാര്ന്ന മലയാള ഭാഷയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളത്തിന് പ്രാധാന്യം കൊടുക്കണം നമ്മൾ ഈ ഈ നമ്മുടെ രാജ്യത്തെ ഈ മലയാള ഭാഷയാണ് നമ്മുടെ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ അപ്പം നമുക്ക് മലയാളം എന്ന് പറയുമ്പം നമുക്ക് അതൊരുപാട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ആ മലയാളത്തില് തന്നെ നമ്മളൊരുപാട് ഇത് ചെയ്യണം